പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കിയിരുന്നത് സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു ബഹുമാനമോ ഒന്നും നൽകിയിട്ടിണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾക്കാണ് മുൻഗണന സ്ത്രീകൾക്ക് വേണ്ടി ഗവണ്മെൻറ്റ് കുടുംബശ്രീ അങ്ങനെ പല തരം തൊഴിലുറപ്പ് അങ്ങനെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പല തരം ജോലികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കുടുംബശ്രീയിലൊക്കെ തന്നെ പല തരത്തിലുള്ള പദ്ധതികളിൽ ചേർന്നാൽ നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ ഗൾഫിലേക്ക് വേണ്ട ജോലികൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പോകുന്നുണ്ട് അവർ തന്നെ മുൻകൈ ഇട്ട് ഇറങ്ങി പോകുന്ന ഒരു പ്രവണത നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് വീടുകളുടെ ചുമതലയായാൽ ഇപ്പോൾ സ്ത്രീകളാണ് മെയിനായിട്ട് നോക്കുന്നത് ഇപ്പം എല്ലാ വീട്ടിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം തുല്യ ജോലി അങ്ങനെയുള്ള ഒരു നിലയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നത്